ഹലോ ഗുഡ് മോണിംഗ് കല്യാണ് ട്രാവൽസിന്റെ ഓഫീസ് അല്ലേ ആ ഞങ്ങൾക്ക് ഒരു വെക്കേഷന് ടൂറ് പോവാനുള്ള ഒരു പിന്നെ പ്ലാനിനെക്കുറിച്ച് അറിയാന് വേണ്ടിയിട്ടായിരുന്നു ആ ഞങ്ങൾ ഞങ്ങൾ കുട്ടികൾ ഉള്പ്പെടെയാണ് അപ്പം കുട്ടികള്ക്ക് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു പ്ലെയിസ് ആണെങ്കില് നല്ലതായിരുന്നു ഓക്കെ മൂന്നാറിലെ ക്ലൈമറ്റൊക്കെ എങ്ങനെയാണ് ഇപ്പം കുഴപ്പമില്ലല്ലോ ഓക്കെ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ രൺ അഞ്ച് പേരുണ്ട് ആ ഞങ്ങൾ രണ്ട് അഞ്ച് ഞങ്ങൾ രണ്ട് പേർ മുതിര്ന്നവരും മൂന്ന് കുട്ടികളും അതിൽ ഇപ്പോൾ ആ അതിൽ ഇപ്പം നമ്മുടെ കുട്ടികളുടെ ഈ റൈഡും കാര്യങ്ങളും ഇതൊക്കെ ഉൽപ്പെടുന്നുണ്ട് ഉള്പ്പെടും അല്ലെ ഓക്കെ റൂമൊക്കെ എങ്ങനെ ആയിരിക്കും ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ട്വന് റി ട്വൻ്റി തൗസന്റ് ട്വൻ്റി ഫൈവ് തൗസൻ്റ് റേയ്ഞ്ചിലാണ് ഇതിന്റെ ഇത് വരുന്നത് അല്ലെ നിങ്ങളുടെ പാക്കേജ് ഓക്കേ ഞാൻ അപ്പോൾ ഹസ്ബന്നൂണെ ഡിസ്കസ് ചെയ്തിട്ട് ഞാന് വിളിക്കാം ഞാന് റിപ്ലെ ചെയ്യാം ഓക്കെ ഓക്കെ വെല്ക്കം ശരി